ഈ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ശേഖരിക്കുന്നത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ എന്തെന്ന് ചോദിക്കുന്നത് ടോയ് കളിപ്പാട്ടങ്ങൾ തന്നെയായിരിക്കും അത് കാറ് പോലുള്ള വണ്ടി വണ്ടികളൊക്കെ തന്നെ ആയിരിക്കും അത് ആൺകുട്ടികളാട്ടെ പെൺക്കുട്ടികളാകട്ടെ എല്ലാവരും തന്നെ ശേഖരിക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളാണ് സ്റ്റാമ്പ് ശേഖരണമെന്നൊക്കെ തന്നെ പഴയ തലമുറയിൽപ്പെട്ട കുഞ്ഞ് കുഞ്ഞ് ആളുകൾ ശേഖരിക്കുന്നതായിരുന്നു ഇപ്പഴത്തേ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അതിനേക്കുറിച്ച് കൂടുതലായിട്ട് അറിവുണ്ടോ എന്ന് ശേഖരിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ശേഖരിക്കുന്ന കുറച്ച് പേരൊക്കെ അതൊക്കെ ശേഖരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാൽ തന്നെ കൂടുതലായിട്ട് കുട്ടികള് ശേഖരിക്കുന്നത് ടോയ്സ് തന്നെയായിരിക്കും അങ്ങനെ കുഞ്ഞ് പ്രായത്തിലേ കുഞ്ഞുങ്ങൾക്ക് വണ്ടികളോട് കാണുന്ന കൗതുകങ്ങളാരിക്കും അതുങ്ങളെ അവര് വിവിധ തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉദാഹരണത്തിന് കാറുകൾ ചെറിയ കാറുകൾ എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള കളറുകൾ വർണ്ണങ്ങളിലുള്ള എല്ലാ കാറുകൾ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ആകർഷണീയത തോന്നുകയും അതിങ്ങള് അവരത് വാങ്ങി കൂട്തലായിട്ട് ശേഖരിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടി അവര് ശ്രമിക്കുകയും ചെയ്യും ഈ തലമുറയിൽപ്പെട്ട എല്ലാ വീടുകളും വീടുകളിൽ തന്നെ കാണും ഒരുപാടിങ്ങനെ ടോയ്സുകളുടെ ശേഖരങ്ങള് തന്നെ അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികൾളാകട്ടെ ആകട്ടെ എല്ലാവരും ശേഖരിച്ച് വെക്കുന്നത് ഇതുപോലെ ടോയ്സ് കാറുകൾ വണ്ടി വാഹനങ്ങൾ അടക്കം അത് അത് തന്നെയായിരിക്കും പിന്നേ പെൺകുട്ടികളാകട്ടേ ബാർബി ഡോൾ പോലുള്ള മറ്റേ എന്താ ടെഡ്ഡി ബിയർ പോലുള്ള സാധനങ്ങള് മറ്റും വിവിധ കളറുകളിൽ ഇരിക്കുന്ന സോഫ്റ്റായിട്ടുള്ള സാധനങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതിനിടെ അത് കാണുമ്പോൾ അവർക്കൊരു ക്യൂര്യോസിറ്റി ഒരു കൗതുകമുണ്ടാകുകയും അതെ അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് വാങ്ങിച്ച് സൂക്ഷിച്ച് അതവര് സൂക്ഷിച്ച് വെക്കുന്നതിന് അവര് അത് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ബാർബി ഡോൾ പോലുള്ള ഒരുപാട് സാധനങ്ങള് അതിൻ്റെ അതല്ലേ വ്യത്യസ്ത രീതിയിൽ ഉള്ളതിൻ്റെ നിർമ്മാണം എല്ലാം കുഞ്ഞുങ്ങളെ ആകർഷിക്കുകയും കുട്ടികള് ടോയ് അങ്ങനത്തെ സോഫ്റ്റ് ബാർബി ഡോൾ പിന്നെ ടെഡ്ഡി ബിയർ അങ്ങനെപോലുള്ള സാധനങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ ശേഖരിച്ച് വെക്കുന്നത് അത് അത് കളിക്കുന്നതിന് അതുങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് എന്ത് തന്നെ കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കുക എന്നതിന് ഉപരി കുഞ്ഞുങ്ങൾക്ക് ടോയ് അതായത് കാറുകളുടെ ശേഖരണം ചീസ് അങ്ങനെ വണ്ടികളുടെ ശേഖരണം അതൊക്കെ ആയിട്ട് കളിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് സ്റ്റാമ്പുകള് നാണയങ്ങള് ഇതൊക്കെ ശേഖരിക്കുന്ന കുട്ടികളുണ്ട് ഉണ്ടാകും അന്ന് അത് കുറച്ചേ കാണുകയുള്ളൂ അതിൻ്റെ കൗതകം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാണുകയില്ല എന്നാൽ

അതുകൊണ്ട് ഈ തലമുറേൽപ്പെട്ടാല് എല്ലാ കുഞ്ഞുങ്ങളും തന്നെ നാ കാറ് അത് പോലുള്ള ടോയിസ്സ് വാഹനങ്ങള് വാഹനങ്ങള് വാങ്ങി അതു ഉപയോഗിക്കുന്നതിനാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്